ഹായ് ഹലോ പിന്നെ നമ്മളെ കളികൾ നമ്മളെ ജീവിതത്തിനെ എങ്ങനെ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ കൊണ്ടു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഈ കളികളെ കൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ ഉള്ളു എന്താണെന്ന് വച്ചാൽ മനുഷ്യന്മാർ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് പിന്നെ നമ്മളെ മൈൻഡ് ഫ്രീ ആക്കുന്നത് പിന്നെ നമുക്ക് ഒരു ബോഡി എക്സർസൈസ് കിട്ടുന്നത് എല്ലാം കളികൾ കൊണ്ടാണ് നമ്മളെ കുറെ ആൾക്കാരും കുറെ പിന്നെ നമ്മൾക്ക് വേറെ വേറെ സ്ഥലങ്ങളിലെ ആൾക്കാർ കോണ്ടാക്ട് കാര്യങ്ങൾ അത് ഇത് എല്ലാം വരുന്നത് നമുക്ക് കളികളിലൂടെയാണ് ഓരോ കളികൾ ഓരോ കളികൾക്കും ഓരോ ഓരോ പ്രത്യേകതയുണ്ട് നമ്മളെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ബുദ്ധി വളർച്ചയ്ക്കുള്ള കളികളുണ്ട് പിന്നെ നമ്മളെ ബോഡി ക്കുള്ള കളികളുണ്ട് എല്ലാത്തിനും വേറെ വേറെ കളികളുണ്ട് കുറെ കളികളുണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഒരു ഇതിൽ കബഡി പ്ലേയറാണ് ഞാൻ ആ കബഡി കളിച്ചു കൊണ്ട് ഉണ്ടാകുമ്പോൾ എൻ്റെ കുറെ നമ്മൾക്കുണ്ടായ ഇത് ഫ്രീയും നമ്മളെ മൈൻഡും അത് ഇത് എല്ലാം എല്ലാം കൂടി ഒന്നിപ്പിച്ചിട്ടുള്ള കളിയാണ് കബഡി എന്ന് പറയുന്നത് മൈൻഡ് വർക്ക് ബോഡി മൈൻഡ് എല്ലാം യൂസ് ചെയ്യണം കബഡി കളി അപ്പോൾ അത് ഞാൻ എൻ്റെ മെയിൻ ഹോബി കബഡി ആയിരുന്നു ഇപ്പോൾ കബഡി കളിക്കലില്ല ഇപ്പോൾ ക്രിക്കറ്റിലേക്ക് പോയി ആ ക്രിക്കറ്റിൽ ഇപ്പോൾ അതേ പോലെ തന്നെ രാവിലെ രാവിലെ നമ്മൾ എണീറ്റിട്ട് എന്നും നമ്മൾ ഇത് കളിക്കൽ കളിക്കാറുണ്ട് നമ്മളെ കുറച്ച് ആൾക്കാരും നമ്മളെ ഒരു ചെറിയ ഒരു ടീം ഉണ്ട് ആ ടീമ് കളിക്കലുണ്ട് രാവിലെ തന്നെ എണീറ്റിട്ട് രാവിലെ പോയിട്ട് കളിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഒന്ന് ഉഷാറാവും നമ്മളെ ബോഡി തന്നെ ഒന്ന് ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ് വന്നതെന്ന് പറഞ്ഞാൽ കളി നമ്മൾക്ക് എന്നും നമ്മളെ ഇത് ബോഡിനെ ആകട്ടെ നമ്മളെ മൈൻ്റ് ആകട്ടെ എല്ലാം കൂളാക്കുന്ന ഒരു സാധനമാണ് കളി എന്ന് പറയുന്നത് ഗെയിംസ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ തന്നെ ഇപ്പോൾ എനിക്ക് കുറെ ആൾക്കാറുമായിട്ട് നല്ല നല്ല അടുത്ത ബന്ധമുണ്ട് കുറെ പിന്നെ ചങ്ങാതിമാരെ കിട്ടുന്നു കുറെ ചങ്ങാതിമാരുണ്ട് ഇപ്പോൾ കുറെ പുറം നാട്ടിലും നമ്മളെ നാട്ടിലും എല്ലാ ആൾക്കാരെയു ഒന്നിച്ചിട്ട് ഇത് കണ്ടിട്ട് പരിചയപ്പെടാനും അതിനു ഇതിനെല്ലാം കുറെ ഏത് സുഹൃത്തുക്കളെ തരാനും എല്ലാത്തിനും കളികൾ നല്ല രീതിയിൽ എന്നെ പ്രോൽസാഹിപ്പിച്ചിന് അപ്പോൾ കളി കളി എന്ന് പറഞ്ഞാൽ കളിനെ ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ ഒരു പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ തലമുറക്ക് ഒരു കളി എന്ന് പറഞ്ഞാൽ എല്ലാം ഓൺലൈൻ ഗെയിം ആയിട്ട് മാറിയിട്ടുണ്ട് അതിൽ കുറച്ച് മോശം മോശങ്ങളുണ്ട് അത് പിന്നെ പറയാൻ വച്ചാൽ അതിൽ കുറച്ച് കുറച്ച് എന്നല്ല കുറച്ച് അധികം ഇത് മോശം കാര്യങ്ങളുണ്ട് ഓൺലൈൻ ഗെയിമുകളിൽ അതല്ല നമ്മളെ പ്രാക്റ്റിക്കൽ ഗെയിം ആണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പിന്നെ ഗുണകരം നമ്മളെ ശരീരത്തിനാകട്ടെ നമ്മളെ ഇത് മൈൻഡിനാകട്ടെ ഹെൽത്തിനാകട്ടെ എല്ലാത്തിനും ഗുണകരം നമുക്ക് പ്രാക്റ്റിക്കൽ ഗെയിമാണ് അപ്പോൾ ആ കളികളിൽ നമ്മൾ നല്ല രീതിയിൽ കുറേ ചങ്ങാതിമാരും കുറേ കൂട്ടു കെട്ടും അങ്ങനത്തെയെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് തന്നെ കുറേ ചങ്ങാതിമാറുണ്ട് കുറേ കൂട്ടു കെട്ടുണ്ട് കുറേ ആൾക്കാറുണ്ട് കൂട്ടു കെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മോശം കൂട്ടുകെട്ട് ഒന്നും അല്ല എല്ലാം ഈ കളികളിലൂടെ കിട്ടുന്ന നമുക്ക് അതൊരു നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വന്നു വന്നു പോയെങ്കിൽ ഇങ്ങനെ സഹായിക്കാനും അതിനു ഇതിനുമെല്ലാം കുറച്ച് ആൾക്കാർ അപ്പോൾ ഈ കളികളിലൂടെ നമ്മൾക്ക് നല്ല ബന്ധങ്ങൾ അല്ലാതെ മോശം ബന്ധങ്ങൾ നമുക്ക് കളികളിലൂടെ വരലില്ല നമ്മൾ ഞാൻ എല്ലാമിപ്പോൾ ഒരു ടൈമിൽ ഒരു കളിയുമില്ലാതെ ഇങ്ങനെ അടങ്ങി കൂടിയിട്ട് ഉണ്ടായിന് ആ സമയത്തെല്ലാം നമുക്ക് പിന്നെ കുറച്ച് ഒരു വിഷാദം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ടായിന് ഒരു ടൈമിൽ പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇത് അസുഖങ്ങളുണ്ട് എനിക്ക് ഒരു പിന്നെ ഇത് അപസ്മാരം എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ട് എനിക്ക് ആ അസുഖത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് മൈൻഡ് ടെൻഷൻ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നമ്മ എൻ്റെ ഡോക്ടർമാറും എല്ലാവരും പറഞ്ഞത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഫുൾടൈമ് ഏകദേശം മുക്കാലും നമ്മ നമ്മളെ പണിയും അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ മുക്കാലും കളിക്കു വേണ്ടിയാണ് മാറ്റി വയ്ക്കൽ നമ്മളെ മൈൻഡ് മൈൻഡ് കുറച്ച് ഫ്രീ ആണ് കൂളാണ് നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് അത് മാറ്റി വയ്ക്കാൻ കഴിയുന്നു പിന്നെ നല്ലോണം ഒരു ഗുണകരം ഗുണം കിട്ടുന്നുണ്ട് എനിക്ക് കളിയിലൂടെ കളിയിലൂടെ നമുക്ക് നല്ലോണം ഒരു പിന്നെ ഗുണം കിട്ടുന്നുണ്ട് എൻ്റെ മൈൻഡിനും എൻ്റെ ബോഡിക്കും എല്ലാത്തിനും പിന്നെ നമ്മളെ പിന്നെ കുറേ ഈ പറഞ്ഞത് പോലെ നമുക്ക് നല്ല നല്ല കുറെ ചങ്ങാതിമാറും പിന്നെ സന്തോഷം സന്തോഷം സങ്കടം സങ്കടം എന്ന് പറയുന്ന ഇല്ല നമ്മൾ കളിയിൽ കളിക്ക് പോവുമ്പോൾ സങ്കടം എന്ന് പറയുന്നത് പറയുന്നത് കാര്യം ഇല്ല സന്തോഷങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ കുറെ ആൾക്കാറും ചങ്ങാതിമാറും പിന്നെ അതൊരു ടീം ആയിട്ട് ചെറിയൊരു ട്രിപ്പ് അങ്ങനത്തെ എല്ലാം നമുക്ക് വരുന്നുണ്ട് അങ്ങനത്തെ എല്ലാം നമുക്ക് അവിടെ നിന്ന് ഇത് സെറ്റ് ആക്കാൻ കയിന്ന്ണ്ട് പിന്നെ ഒരു ഈ ഒരു കളിക്ക് പോവുമ്പോൾ തന്നെ ഓരോ ഒരു ടൂർണമെൻറ് കാര്യം അങ്ങനത്തതിനെല്ലാം പോവുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു ചെറിയ ഒരു ട്രിപ്പുമായി ചെറിയ ഒരു പിന്നെ മൂടായി നല്ല ഒരു രീതിയിൽ നമുക്ക് കളി കളികളിലൂടെ നമ്മൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഒരു നമ്മളെ ബോഡിക്കേറ്റവും നമുക്ക് ഇത് സ്റ്റാമിന സ്റ്റാമിന വർദ്ധിപ്പിക്കാൻ വേണ്ട നമ്മളെ ഇത് ഫുട്ബോള് കളി എല്ലാ കളിയും കളിച്ചു കൊണ്ട് ഉണ്ടായിന് ഫുട്ബോളും പിന്നെ കളിച്ചു കൊണ്ട് ഉണ്ടായിന് ഇപ്പോൾ ക്രിക്കറ്റിൽ മാത്രം കളി കളിക്കാൻ പോകുന്നില്ലല്ലോ അത്യാവശ്യം എല്ലാ കളിക്കും പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ക്രിക്കറ്റാണ് നമ്മളെ മെയിന് കുറച്ച് ആൾക്കാർ കൂടിയും കുറച്ച് നമ്മൾ ചങ്ങാതിമാരും പിന്നെ വൈകുന്നേരങ്ങളിൽ കുറേ ആൾക്കാർ ഒന്നിച്ച് കൂടി സംസാരിക്കാനും നമ്മളെ പിന്നെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ടാവാനും എല്ലാവരും കളിക്കുന്നോ കളിക്കുന്നോ എന്ന് ചോദിക്കുമ്പോ നമുക്ക് കളിക്കുന്നു പോവാം കളിക്കാം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കൊരു പിന്നെ മൈൻഡിലൊരു സന്തോഷം വരുന്നുണ്ട് നമ്മളെ ഉള്ളിലൊരു സന്തോഷം വരുന്നുണ്ട് പിന്നെ ആ മറ്റേ സമയത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കരം ബേജാറിൽ കാര്യങ്ങളിൽ എല്ലാം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കളിയെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ അത് ആ ഇത് ചിന്തകൾ നമ്മളെ മനസ്സിൽ നിന്ന് പോവുന്നുണ്ട് അതെല്ലാം എനിക്ക് എൻ്റെ അനുഭവത്തിൽ കളിയെ കുറിച്ച് കളിയെ കൊണ്ട് നമുക്ക് നല്ലോണം ഉപകാരമല്ലാതെ വലിയ ദോഷവും ഞാൻ അതിൽ കാണുന്നില്ല

അത് ഇപ്പം ആരായാലും ഞാൻ ഞാൻ എന്നല്ല ആരായാലും പിന്നെ ഇതിൻ്റെ ഈ കളിനെ കുറിച്ചിട്ട് നല്ല പോസിറ്റീവ് കാര്യം അല്ലാതെ നെഗറ്റീവ് കാര്യം ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു എനിക്ക് അത് പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നതല്ല പറയാൻ കഴിയില്ല ആരെക്കൊണ്ടും സാധിക്കില്ല പിന്നെ നമ്മൾ ഒരു ഇപ്പോൾ ഓഫീസ് വർക്കെല്ലാം ചെയ്യുമ്പോൾ അങ്ങനത്തവർക്കെല്ലാം ഈ സ്പോർട്സിൽ കുറച്ച് കുറച്ച് ടൈം ഒരു രണ്ട് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് രണ്ട് മണിക്കൂർ അതിന് മാറ്റി വച്ചാൽ നമ്മൾക്ക് അതിൽ കിട്ടുന്ന എനർജിയും അതിൽ കിട്ടുന്ന പോസിറ്റീവ് മൈൻഡും അതെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും കുറെ ആൾക്കാർ പിന്നെ ഒന്നിച്ച് കൂടുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയും പിന്നെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങനെ അകന്ന് അകന്ന് പോകുന്നുണ്ട് അപ്പോൾ ആ ഇതിൽ നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ ഒരു കളിയിൽ അല്ലെങ്കിൽ രാവിലെ പിന്നെ ഒരു കളി അങ്ങനെ ഇങ്ങനെ എല്ലാമുണ്ടെങ്കിൽ നമുക്ക് ഈ അകന്ന് പോകുന്ന തലമുറയെ ഒന്നിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഞാനിപ്പോൾ അതേപോലെ നമുക്ക് ഈ ഇല്ല ആൾക്കാർ എന്നെ ഒന്നിപ്പിച്ച് കൊണ്ടുപോവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഒരു ചെറിയ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ കളി കളിച്ചു കൊണ്ട് ഉള്ളത് അപ്പോൾ അതിൽ കുറെ ആൾക്കാർ കുറെ ഭാഗത്ത് നിന്നു ള്ള ആൾക്കാർ ഇന്ന ജാതി മതം പിന്നെ അതൊന്നുമല്ലാതെ നമ്മൾക്ക് കുറെ ആൾക്കാർ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഈ കളിയിലൂടെ കളിയിലൂടെ നമ്മൾക്ക് പിന്നെ അത് ഒരു ഇതും നമ്മൊ നോക്കലില്ല കളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതിൽ പിന്നീ ജാതിയോ മതമോ പിന്നെ ഇവൻ ഇന്ന ആളോ ഓന് അന്ന ഇന്ന ആളോ അതൊന്നും നമ്മോ നോക്കലില്ല എല്ലാവരെയും നമ്മൾക്ക് ഒന്നിപ്പിച്ചിട്ട് കൊണ്ടു പോവാൻ കഴിയുന്നുണ്ട് എല്ലാവരും നമ്മളെ സുഹൃത്തുക്കളായിട്ടും മാറുന്നുണ്ട് എല്ലാവരും നമ്മളെ പിന്നെ ചങ്ക് ചങ്ക് ഫ്രെൻഡ്സ് എന്ന് പറയുന്നില്ലേ ഇപ്പോഴത്തെ ഭാഷയിൽ പറയുന്നുണ്ടെങ്കിൽ ചങ്ക് ചങ്ക്സ് എന്നെല്ലം പറയുന്നത് പോലെ എല്ലാവരും നമ്മളെ പിന്നെ ചങ്കുകളായിട്ട് മാറുന്നുണ്ട് ഈ കളിയിലൂടെ എനിക്കും അതേപോലെ കുറേ ആൾക്കാറെ കിട്ടിയിട്ടുണ്ട് പുറമെ നിന്ന് പുറമെലത്തെ കുറെ ആൾക്കാരെ കിട്ടീന് ഇവിടത്തെ കുറെ ആൾക്കാരെ കിട്ടീന് പിന്നെ നമ്മളെ നാട്ടിൽ ഇല്ലെങ്കിൽ ഇപ്പഴത്തെ പിന്നെ പിള്ളെരെയെല്ലാം നമ്മൾക്ക് കാണണമെങ്കിൽ തന്നെ കുറെ കണ്ടാലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പഴത്തെ പിള്ളെറും ആൾക്കാരുമെല്ലാം പോന്നില്ലത് അപ്പോൾ ആ ആൾക്കാറെല്ലാം ഈ ഒരു പിന്നെ നമ്മൾ ഒന്നിച്ച് കളിക്കാൻ വരുമ്പോൾ ആ പിള്ളർക്കെല്ലാം നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാറെ പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു അൾക്കാറെ നമ്മളെ പിന്നെ കുറച്ച് കൂടുതൽ അടുപ്പങ്ങൾ കാണിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അവർ നമ്മളെ കാണുമ്പോൾ ചെറിയ ഒരു ഇത് നമ്മളെ ഒരു ഒരു റെസ്പെക്റ്റ് കാര്യം എല്ലാം തരുന്നുണ്ട് അങ്ങനത്തെ എല്ലാം ഇതിന് കളി നല്ല രീതിയിൽ തന്നെ അതായത് നമ്മളെ പിന്നെ ഇതിനെ തലമുറയെ കൊണ്ടു പോവുന്നുണ്ട് അപ്പം അതുകൊണ്ട് കളി എന്ന് പറയുന്നത് നമുക്കെന്നും ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമ്മളെ ഏത് എങ്ങനത്തെ ഒരു ആളായെങ്കിലും ഇപ്പോൾ കളിയിൽ വയസ്സില്ല ചെറിയ കുഞ്ഞോളും വലിയ ആൾക്കാറും ആർക്ക് വേണമെങ്കിലും കുറച്ച് ഒരു താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ പിന്നെ അതിൽ പണ്ടത്തെ ആൾക്കാറും കളി കളിക്കാൻ വരുന്നുണ്ട് ഇപ്പഴും നമ്മളൊന്നിച്ച് കളിക്കുന്നതെന്നെ ആൾക്കാറുണ്ട് പണ്ടത്തെ കുറെ കുറച്ച് പ്രായം കൂടിയ ആൾക്കാർ വരെ നമ്മളൊന്നിച്ച് ഇപ്പോൾ കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവഋക്ക് അറിയുന്നതാണ് പണ്ടത്തെ കാലത്ത് എല്ലാവരും ഒന്നിച്ച് കളിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം അപ്പോൾ ആ പിന്നെ ഈ സന്തോഷം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് നമ്മളെ ഒന്നിച്ചുള്ള കുറെ ആൾക്കാരുണ്ട് പിന്നെ കുറച്ച് നമ്മോ ഇപ്പോൾ കളിക്കുമ്പോൾ നമുക്ക് കുറെ പിള്ളമ്മാറെയും എല്ലാരെയും നമുക്ക് കൊണ്ടു വരാൻ സാധിക്കുന്നുണ്ട് കൊണ്ട് കൊണ്ട് വന്നത് കൊണ്ട് ഉണ്ട് നമ്മളെ ഇതിലേക്ക് നമ്മളെ കൂട്ടായ്മയിലേക്ക് എല്ലാത്തിലേക്കും കൊണ്ടു വന്നത് കൊണ്ട് ഉണ്ട് ഇന്നത്തെ തലമുറ എന്തായാലും കുറച്ച് ഒരു വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ഒരു ചെറിയ ഒരു കളി കാര്യങ്ങൾ അങ്ങനത്തെ എല്ലോം വച്ചാൽ അത് എല്ലാവരിക്കും ഒരു ഉപകാരമാവുന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്നത് തോന്നുന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കളി എന്ന് പറയുന്നത് നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവ് എനർജി ആയിട്ട് പോസിറ്റീവ് കാര്യം പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് നമ്മളെ സമൂഹത്തിൽ കൊണ്ടു വരാം എല്ലാവരും ഒരു ഏതെങ്കിലും ഒരു കളികളും കാര്യങ്ങളും ആയിട്ട് മുമ്പോട്ട് പോയാൽ നമ്മളെ അൾക്കാരും പിന്നെ കുറെ ആൾക്കാരുമായിട്ട് നമുക്ക് സന്തോഷങ്ങളും ഇതെല്ലാം പങ്കിടാൻ സാധിക്കും സാധിക്കും എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർഥിക്കുന്നു എല്ലാവരും ഒന്നിച്ച് കൂടണം പിന്നെ നമ്മളെ കളിയാണ് നമ്മുടെ ശരീരവും മൈൻഡും എല്ലാം ഒരു ലെവലിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരേ ഒരു പിന്നെ ഇതേയുള്ളു അതാണ് നമ്മളെ ഗെയിംസ് എന്ന് പറയുന്നത് കളി എന്ന് പറയുന്നത്